നിങ്ങളാർക്കെങ്കിലും സമ്മാനമായി എന്തെങ്കിലും ഗദ്യമോ കവിതയോ എഴുതി കൊടുത്തിട്ടുണ്ടോ ഞാൻ ആർക്കും ഇതുവരെ അങ്ങനെ എഴുതി ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ സമ്മാനമായിട്ട് ഗദ്യമോ കവിതയോ എഴുതി കൊടുക്കേണ്ട ഒര് സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല പണ്ട് ഞാൻ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല സമ്മാനമായിട്ട് പണ്ട് നമ്മള് പക്ഷേ എന്താ റൈറ്റിംങ്ങ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പണ്ട് ഉപന്യാസം അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ആർക്കും അങ്ങനെ സമ്മാനമായിട്ട് സ്വന്തവായിട്ടൊന്നും എഴുതി കൊടുത്തിട്ടും എടുത്തിട്ടും ഒന്നും ഇല്ല ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സമ്മാനമായിട്ട് പിന്നെ അല്ലാതൊന്നും അങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ടൊന്നുവില്ല